അഞ്ച് എട്ട് രണ്ടായിരത്തി പതിനാല് ആറ് ഒൻപത് രണ്ടായിരത്തി പതിനാല് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്